എൻ്റെ മതം എന്ന് പറഞ്ഞാൽ ഞാനോരു മുസ്ലിമാണ് ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം തന്നെയാണ് ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാല് ഒരു വർഷം മുമ്പൊ ഇല്ലെങ്കിൽ രണ്ടു വർഷമാവുമ്പോള്തിന്നും മുട്ടായി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് മുട്ടായി കൊടുത്ത് ഇല്ലെങ്കിൽ വള ഇടുക അല്ലെങ്കിൽ മഹർ കെട്ട നിക്കാഹ് കഴിയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ആ ഒരു പരിപാടി കഴിഞ്ഞതിനുശേഷം കല്യാണത്തിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ഒരു മഞ്ഞ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം ഉണ്ട് ചുവന്ന കല്യാണം ഉണ്ട് പിന്നെ കല്യാണത്തിൻ്റെ തലേന്നാണ് മെഹന്തി ഇടൽ ചടങ്ങ് മെഹന്ദി ഇടുന്നത് കുടുംബക്കാരാണ് റിലേറ്റീവ്സ് ആണ് മെഹന്ദി ഇട്ട് തരുന്നത് പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ ആദ്യം ചെക്കൻ ചെക്കൻ ആദ്യം പെണ്ണിനെ കാണുന്നതിന് മുമ്പ് നേരെ പള്ളിയിൽ പോയി നിക്കാഹ് കഴിഞ്ഞ് അവർക്ക് പെണ്ണിന് ആയിട്ടുള്ള ഒരു മഹാറുമായിട്ട് താലിമാലയുമായിട്ട് നേരെ പെണ്ണിനെ കാണാൻ വരുന്നതും സ്റ്റേജിൽ വെച്ച് പെണ്ണിനെ മഹർ ഇടുന്നതും അതൊക്കെ നല്ല രസാണ് കാണാൻ പിന്നെ കല്യാണത്തിന് ഒപ്പന ഉണ്ടാവും ചെക്കനും പെണ്ണിനെ നടുക്ക് നിർത്തി എല്ലാരും ഒപ്പന കളിക്കുന്നതൊക്കെ നല്ല രസമാണ് പിന്നെ ചെക്കൻ വന്ന് കൂട്ടിയിട്ട് പോയി പിന്നെ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം പെണ്ണും ചെക്കനും കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വരുന്നതും അവിടത്തെ സൽക്കാരവും പിന്നെ കുടുംബക്കാരും റിലേറ്റീവ്സും ഒക്കെ ചെക്കനേയും പെണ്ണിനേയും സൽക്കാരം വിളിക്കുകയും അവിടൊക്കെ പോകുകയും അതൊക്കെ പെയ്യുന്നത് നല്ലൊരു രസമാണ്